ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ഭാഷകളാണ് അപ്പം കേരളത്തിലും ലക്ഷദ്വീപ് പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് മലയാളം സംസാരിക്കുന്നുള്ളൂ നമ്മൾ ഇപ്പോൾ വേറെ ഒരു സ്ഥലത്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ കൂടി ചേർന്നു മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പം മലയാളത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുതന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ത്യയിലെ പല ഭാഗത്തും ഇന്ത്യയിൽ നിന്ന് പുറത്തും എന്താണ് പറയുക ജോലിക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാഷാശൈലി ഒക്കെ അവിടെയും എല്ലായിടത്തും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ കൂടുതലായിട്ടും ശ്രമിക്കുന്നുണ്ട് ഇപ്പം മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ആശയവിനിമയത്തിന് വേണ്ടി മാത്രമല്ല പല കാര്യങ്ങൾക്കും മലയാളമാണ് അവർ ഉപയോഗിക്കാറ് നമ്മൾ ഇപ്പോൾ അവിടെ പോയിക്കഴിഞ്ഞാൽ മലയാളത്തിൽ മാത്രമല്ലാണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം കൂടി കലർത്തി മാത്രമാണ് സംസാരിക്കാറ് അപ്പം മലയാളം അവിടെ എന്തായാലും ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സംസാരിക്കുക അപ്പം മലയാളത്തിന് വലിയൊരു പങ്കാണ് അവിടെ അവിടെ എല്ലാടത്തും വഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്